ഹലോ ഗൈസ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിനെ പറ്റിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമായിരിക്കണം നമ്മളുടെ കേരളം നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് പതിനാല് ജില്ലകളിലേക്കു തന്നെ എന്താ ഒട്ടേറെ അനവധി ടൂറിസ്റ്റ് വരാറുണ്ട് അതിൽ ഒന്നായൊരു സ്ഥലമാണ് വയനാട് വയനാട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് എരിയ ആയ ചേഹ് ക്ലൈമറ്റായ ഏരിയും എന്താ നല്ല തണുപ്പും നല്ല കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വയനാട് ഒരു ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിവിടെ നിന്നു കുരുമുളകുകളും അങ്ങനെ കാപ്പിയും തേയിലകളും അങ്ങനെയൊക്കെ എന്താ അന്യ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നു കടത്തിയെന്നല്ല പറയുക നമ്മളവിടെ നിന്ന് സെയിൽ ചെയ്തു കൊണ്ടിരുന്നു പക്ഷേ എന്താ അവർ തന്നെയാണ് എന്താ വന്നെടുത്തതും കൊണ്ടു പോയതൊക്കെ അപ്പം അങ്ങനെ അങ്ങനെ ബ്രിട്ടീഷുകാരിവിടെ വന്നു സ്ഥലം പിടിക്കുകയും എന്താ വയനാട്ടിലേക്കു ചുരം നിർമ്മിക്കുകളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ട് എന്താക്കീ അങ്ങനെയാണ് നമ്മുടെ വയനാടൊക്കെ നിർമ്മിതമായത് ഇപ്പോഴത്തെ കാലത്തു വെച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ ബ്രിട്ടീഷുകാരില്ല ഇപ്പോൾ ഫുൾ കുടിയേറ്റക്കാരാണ് കാരണം ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ അങ്ങ് സഹായിക്കാൻ വേണ്ടി വന്നവരാണ് അവരൊക്കെ അങ്ങനെ അങ്ങനെ ഇവിടെ കുടുംബങ്ങളായി അപ്പോൾ ഇതു കാണാൻ വേണ്ടി തന്നെ എറ്റവും കൂടുതൽ എന്താ ഫോറിൻ കൺട്രീസിലാൾക്കാരാണ് വന്നു കൊണ്ടിരിക്കുന്നത്